ഞാൻ പതിവായി എഴുതുന്നത് ഏറ്റവും കൂടുതൽ എഴുതുന്നത് ഒന്ന് ഡയറി എല്ലാ ദിവസവും വൈകിട്ട് അന്നേ ദിവസം നടന്ന സംഭവങ്ങളെപ്പറ്റി ഞാൻ എഴുതാറുണ്ട് രണ്ടാമത് ഞാൻ പ്രസംഗങ്ങ ൾ എഴുതാറുണ്ട് പ്രസംഗങ്ങൾ എന്നുപറയുന്നത് ക്രിസ്തീയ പ്രസംഗങ്ങൾ ക്രിസ്തീയ വിഷയങ്ങളെപ്പറ്റി ഞാൻ എഴുതാറുണ്ട് മൂന്നാമത് ഫേയ്സ്ബുക്കുകളിലൊക്കെ ഇന്നത്തെ സമകാലീന പ്രശ്നങ്ങളെപ്പറ്റി കുറിക്കാറുണ്ട് നാലാമത് ക്രിസ്തീയ മാഗസീനുകളിലൊക്കെ എഴുതാറായിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഊർജം കാരണമെന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ എനിക്ക് ഒരുപാട് കാഴ്ചപ്പാടുണ്ട് എൻ്റെ ഭാഗത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കൊരുപാട് ശരികളുണ്ട് അപ്പോൾ അത് എനിക്ക് എനിക്ക് സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം ഒന്ന് ഏറ്റവും ഏറ്റവും വലിയ മാർഗ്ഗമെന്ന് പറയുന്നത് ഞാൻ എഴുത്തിലൂടെയാണ് വിളിച്ചു പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എനിക്ക് തരുന്ന ഊർജമെന്ന് പറയുന്നത് സമൂഹത്തിൽ ഞാൻ എൻ്റെ ശരി എൻ്റെ ശരി എൻ്റെ കാഴ്ചപ്പാടുകൾ അത് എത്രത്തോളം സമൂഹത്തോട് ബന്ധപ്പെട്ടിരിക്കും അതാണ് എഴുതാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അത് എന്നെ ഊർജ്ജപ്പെടുത്തുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ മലയാളമാണ് കാരണം മലയാള ഭാഷ എന്നെ സംബന്ധിച്ചെടുത്തോളം എൻ്റെ മദർടങ്കാണ് എൻ്റെ മാതൃഭാഷയാണ് ആ മാതൃഭാഷയിൽ എൻ്റെ എൻ്റെ എഴുത്തുകൾ വളരെ കണ്ടിന്യൂസായിട്ട് വളരെ ഈസിയായി ആ ഭാഷ ഉപയോഗിക്കാനായിട്ട് എഴുതാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് വളരെ ആശയപരമായി എൻ്റെ ആശയങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുള്ള എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ അതേപോലെ പകർത്തി എഴുതുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്ന മലയാള ഭാഷയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് മലയാള ഭാഷ ഞാൻ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കാരണവും